ഗ്രാമപ്രദേശത്തും നഗരപ്രദേശത്തും അധ്യാപനരീതി രണ്ടും വ്യത്യസ്തമാണ് ഇപ്പോൾ ഗ്രാമപ്രദേശത്തുള്ള രീതിയെന്ന് പറയണമെങ്കിൽ അവിടെ സൗകര്യങ്ങൾ വളരെ കുറവായിരിക്കും സൗകര്യങ്ങൾ കുറവായിരിക്കും അതുപോലെത്തന്നെ കുട്ടികൾക്ക് അവിടെ സ്വാതന്ത്ര്യവും കൂടുതലായിരിക്കും എന്നാൽ നഗരപ്രദേശത്തിലുള്ള നഗരപ്രദേശത്തുള്ള വിദ്യാലയങ്ങളിൽ സൗകര്യങ്ങളും കൂടുതലായിരിക്കും അതുപോലെത്തന്നെ അവിടെ അധ്യാപകർ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും രണ്ടും രണ്ടിനും അതിന്റേതായ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് ഗ്രാമപ്രദേശത്ത് ഒരു വിദ്യാലയം വേണം കാരണമെന്തെന്നാൽ ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്നവർക്ക് ഒരുപാട് ദൂരം നഗരത്തിൽ പോയി പഠിക്കുവാൻ സാധിക്കുകയില്ല ഏറ്റവും കൂടുതൽ ഗ്രാമപ്രദേശത്ത് ഉള്ള മെച്ചമെന്തെന്നാൽ അവിടെ ഫീസൊക്കെ വളരെ കുറവായിരിക്കും ഇപ്പോൾ ഗവൺമെൻറ്റ് സ്കൂളാണെങ്കിൽ ഫീസ് വേണ്ട പക്ഷേ അവിടെ പഠനത്തിൻ്റെ രീതി എന്തെന്നാൽ അധികം സ്ട്രിക്ട് ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ അധ്യാപകർ ചിലപ്പോൾ കുറച്ച് ഉഴപ്പാനൊക്കെ സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഫീസ് കൊടുത്ത് നഗരപ്രദേശത്ത് പഠിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് അവിടെ അത്രയും സ്ട്രിക്റ്റ് ആയിരിക്കും കുട്ടികൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയും ചെയ്യും